ഇപ്പോൾ നമുക്കെന്നു പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിനുള്ളിൽ ചെയ്തുകൊടുത്തു തീർത്തുകൊടുക്കേണ്ട ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു കാരണമെന്തെന്നുവച്ചു കഴിഞ്ഞാല് ഒരു വർക്കായിരുന്നു നമ്മളെ ഒരു പെയിൻറ്റിങ് വർക്കായിരുന്നു അത് ഒരുമാസം സാവകാശമാണ് അവര് തന്നത് പക്ഷേ എനിക്കങ്ങനെ തീർത്തുകൊടുക്കാൻ അത് സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഒന്നരമാസത്തിനടുത്തായിരുന്നു അതിൻ്റെ ഇതൊക്കെ ചെയ്തുവന്നപ്പോഴത്തേക്കും പിന്നെ അതൊരു ഭയങ്കര ഒരു കഷ്ടപ്പാടായിരുന്നു കാരണെന്തെന്നുവച്ചു കഴിഞ്ഞാല് അത് നമുക്ക് പെട്ടെന്ന് പൂർത്തീകരിച്ചു കൊടുക്കാൻ വേണ്ടി സാധിച്ചില്ല അപ്പോൾ അതിൻ്റെ ഒരു വിഷമവും കാര്യങ്ങളൊക്കെയുണ്ടായിരുന്നു അത് പണിക്കാരുടെ ലഭ്യതക്കുറവും കാര്യങ്ങളും കൊണ്ടൊക്കെയാണ് അത് തീർത്തുകൊടുക്കാൻ പറ്റാത്തത് അപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയായിട്ടുണ്ടായിരുന്നു പിന്നെ പല രീതീലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നേരിട്ടു പൈസ അവര് തരാനുണ്ടായി അങ്ങനത്തെ പല രീതീലുള്ള പ്രശ്നങ്ങളൊക്കെയുണ്ടായിരുന്നു പിന്നെ അത് റെഡിയായി പിന്നെ അടുത്ത വർക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ അത് കറക്ട് ടൈമിന് ഞങ്ങള് പണി തീർത്തുകൊടുത്തു വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും നല്ലൊരു കഷ്ടപ്പാട് നേരിട്ടിട്ടാണ് ചെയ്ത് കൊടുത്തത്